വരയ്ക്കുമ്പോൾ ഏത് തരത്തിലുള്ള സാമഗ്രികളാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എന്ത് കിട്ടിയാലും വരയ്ക്കുന്ന ത് ഒരു തരത്തിലുള്ള ആളാണ് ഞാൻ പേപ്പർ ഇഷ്ടമാണ് ക്യാൻവാസ് ഇഷ്ടമാണ് പെൻസിൽസ് ഇഷ്ടമാണ് പേപ്പറിൽ തന്നെ നമുക്ക് പലതരം പേപ്പർ ഉണ്ട് എ ഫോർ സൈസ് പേപ്പർ ഉണ്ട് അതുപോലെ തന്നെ പല തരത്തിലുള്ള സൈ വലിപ്പത്തിലുള്ള പേപ്പറുകൾ ഉണ്ട് ചാർട്ട് പേപ്പറുകൾ ഉണ്ട് അതിലും ഓരോന്നിലും വരയ്ക്കുന്നത് ഇഷ്ടമാണ് അതുപോലെ തന്നെ ക്യാൻവാസ് ഇഷ്ടമാണ് ക്യാൻവാസിൽ നമുക്ക് വാട്ടർ കളർ പോലത്തെ ഉള്ള അങ്ങനെയുള്ള നിറങ്ങൾ വെച്ചിട്ടുള്ള നിറങ്ങളൊക്കെ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പെൻസിൽസ് കളും ഉണ്ട് പെൻസിലുകൾ തന്നെ പല തരത്തിലുള്ളതുണ്ട് കട്ടി കൂടിയ പെൻസിൽ ഉണ്ട് കട്ടി കുറഞ്ഞ പെൻസിൽ ഉണ്ട് കട്ടി കൂടിയത് തന്നെ എച്ച് പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്തിരി കടും നിറം തരുന്ന പെൻസിലുകൾ ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര കടും നിറം അല്ലാത്ത തരത്തിലുള്ള പെൻസിൽ ഉണ്ട് അതനുസരിച്ച് നമുക്ക് പല തരത്തിലുള്ള വരകളൊക്കെ വരയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പെയിൻറുകൾ ഉപയോഗിച്ച് വരയ്ക്കാറുണ്ട് പെയിൻറ് ആക്രിലിക്കിൻ്റെ പല തരത്തിലുള്ള പെയിൻറുകൾ വാങ്ങിക്കാറുണ്ട് ആക്രിലിക് അപ്സര നടരാജ് ഇതൊക്കെയാണ് വലിയ വലിയ കമ്പനികളുടെ അതുപോലെ തന്നെ ഫാബ്രിക്ക് കാസ്റ്റിൽ ക്യാമൽ അങ്ങനെയുള്ള പല തരത്തിലുള്ള വലിയ വലിയ ബ്രാൻഡുകളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ബ്രാൻഡുകളിലുള്ള പെൻസിലുകളും ഈ കളറുകളും ഒക്കെ ഉപയോഗിക്കാൻ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് എനിക്ക് നി പ്രിയപ്പെട്ട ചില ബ്രാൻഡുകളൊക്കെയാണ് ഇതൊക്കെ ആയിട്ട് പറയാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ര പെൻസിലുകളും ഇത് ഈ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പേപ്പറുകളും പെൻസിലും ക്യാൻവാസുകളും എല്ലാം വാങ്ങുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ശാല എന്ന് പറയുന്നൊരു വലിയ തരം മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിൽ തന്നെ പല തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട് അതിൽ നമ്മുടെ ഈ ഇങ്ങനെ വരയ്ക്കാൻ ആവശ്യമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ ഉള്ള പേപ്പറുകൾ പെൻസിലുകൾ ക്യാൻവാസുകൾ പെയിൻറുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കടയിൽ നിന്നുമൊക്കെയാണ് ഇത് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ വിലക്കൂടുതൽ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വില കൂടുതൽ തന്നെയാണ് അത് അതിൻ്റെ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ള ചിലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അത് വിലക്കൂടുതൽ തന്നെയാണ് അത് നമുക്ക് നമ്മൾ സാധാരണക്കാരായ നമുക്ക് വിലക്കൂടുതൽ ആണെങ്കിലും അത് ഇത് ഇങ്ങനത്തെ ഉള്ള പെയിൻറുകളും പിക്ച്ചറുകളും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ വെച്ച് അവർക്ക് ലാഭം കിട്ടുന്നുണ്ടാവും ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അത് വില കൂടുന്നത് കൊണ്ട് നമുക്ക് അവരെ ഒന്നും പറയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല പേ നമ്മൾ നമ്മുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി അത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നതേ ഉള്ളൂ